നമ്മള് എല്ലാ വീട്ടിലും ഇപ്പൊ പാചകം ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് എൽപിജി സിലിണ്ടർ അധിക പേർക്കും ഇതിൻ്റെ സുരക്ഷാ നടപടികളെപ്പറ്റിയൊന്നും അധികം അറിയാത്തവരാണ് എൽപിജി സിലിണ്ടർ ഉപയോഗിക്കുമ്പോ ലീക്കേജ് നമ്മളുപയോഗിക്കുന്ന സമയത്ത് മണം വരുന്നുണ്ടേൽ അതായത് മീഥേൽ മെർക്യാപിറ്റൻ എന്ന രാസ വസ്തുവാണ് എൽപിജി സിലിണ്ടറിന് നമ്മൾക്ക് അനുഭവിക്കുന്ന ആ മണം ഉണ്ടാക്കുന്നത് മീഥേൽ മെർക്യാപിറ്റൻ അതാണ് നമുക്ക് അനുഭവപ്പെടുന്ന മണം ആ ഒരു വാതകമാണ് അത് വരുന്നില്ല എന്ന് നമ്മൾ ഉറപ്പു വരുത്തേണ്ടതാണ് ചൂട് കുറഞ്ഞ സ്ഥലത്താണ് നമ്മൾ സിലിണ്ടർ ഇപ്പോഴും സൂക്ഷിച്ചു വെക്കേണ്ടത് അടച്ച് പൂട്ടിവെക്കുന്ന മുറിയിലൊരിക്കലും എൽപ്പീജി വെക്കാതിരിക്കുക വായു സഞ്ചാരമുള്ളൊരു സ്ഥലത്തായിരിക്കണം നമ്മൾ എൽ പി ജി വെക്കേണ്ടത് എൽപിജി സിലിണ്ടർ കണക്ട് ചെയ്തിരിക്കുന്ന ആ പൈപ്പില് ഒരു വിധത്തിലുള്ള അടുപ്പിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ആ പൈപ്പില് ഒരു വിധത്തിലുള്ള ഓട്ടയോ കേടുപാടുകളോ ഇല്ല എന്ന് നമ്മള് നോക്കി ഉറപ്പു വരുത്തേണ്ടതാണ്